ഫുഡും റൂമും ഫ്രീയായിരിക്കും ഭക്ഷണവും അവിടെന്നന്നെ ഉണ്ടാവും പക്ഷേങ്കിൽ ഭക്ഷണത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം അവിടെ തന്നെ ഉണ്ടാവും ഭക്ഷണം രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിയത്തെയും ഭക്ഷണം അവിടെ ഉണ്ടാവും പിന്നെ റൂം ഉണ്ടാവും ഒരു റൂമാണ് ഉണ്ടാവുക രണ്ട് സിംഗിൾ ബെഡുള്ളത് ഉണ്ടാവും അതുപോലെ തന്നെ ഡബിൾ കോട്ട് കട്ടിലുള്ളതും ഉണ്ടാവും അറ്റാച്ചഡ് ബാത്റൂമും ഉണ്ടാവും ഒരുമിച്ചിട്ട് തന്നെ ബാത്റൂമുമുണ്ടാവും പിന്നെ വാഷ്ബേസുമുണ്ടാവും രണ്ട് തരത്തിലുള്ള ലൈറ്റും ഉണ്ടാവും അതായത് സീറോ ബൾബും ഉണ്ടാവും സാധാരണ ബൾബും ഉണ്ടാവും പിന്നെ അതിൻ്റെ അരികെ തന്നെ പൂള് ഉണ്ടാകലൂണ്ട് ഒരു സ്വിമ്മിങ് പൂള് പോലത്തെ പിന്നെ നല്ല ടെയ്ൽ എല്ലാം ഇട്ട വൃത്തിയിയായ ഹോംസ്റ്റേകളും അതുപോലെ തന്നെ കുറച്ചു കൂടി ചീപ് റേറ്റിനാണെങ്കിൽ നാനൂറ്റി അമ്പത് മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലുള്ള ഹോംസ്റ്റേകളും ഉണ്ട് ചീപ്പർ റേറ്റുള്ളതും ചെറിയ പൈസക്കുള്ളതും അതു പോലെ തന്നെ വലിയ പൈസക്കുള്ളതും ഹോംസ്റ്റേകൾ ലഭ്യമാണ് പിന്നെ ഈ അടുത്തായിട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട് അതെന്നു വച്ചാൽ ഗുഹൻ്റെ ഉള്ളിൽ നല്ല റൗണ്ട് ഷേപ്പുള്ള ബെഡ് എല്ലാമായിട്ട് നല്ല അറ്റ്മോസ്ഫിയറിൽ തണുപ്പ് ത്ത ഒരു ഫീലിങ്ങാണ് ഒരുമിച്ച് തന്നെ ബാത്റൂമുണ്ട് അതും ഗോൾഡൻ സ്വർണത്തിൻ്റെ കളറടിച്ച വറൂ ബെഡ് എല്ലാമായിട്ടുള്ള